ഞാൻ നൃത്തം പഠിച്ചത് ഞാൻ രണ്ടാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് അന്നാണ് ഞാൻ എൻ്റെ നൃത്ത പരിശീലനം ശരിക്കും തുടങ്ങി വെച്ചത് പക്ഷേ എൻ്റെ ഈ പ്രായംവരെയും ഞാനത് കാ അത് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് നൃത്തം എന്നാൽ ആ ഒരു ചെറിയ പ്രായത്തിലെനിക്കത് വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ പിന്നീട് ഓരോ പ്രായത്തിൻ്റെ സമയമെത്തുബോളും എനിക്കത് ആ ഒരു ഇഷ്ടത്തോട് പിന്നെ ഞാൻ പിന്തള്ളി പുറത്തോട്ട് പോന്നു പക്ഷേ ആ സമയത്തൊക്കെ നല്ല താല്പര്യമായിരുന്നു പിന്നെ ഓരോരോ ക്ലാസുകളെത്തുമ്പോൾ ഒരോ കുഞ്ഞി കുഞ്ഞി ചെറിയ പരിപാടികൾക്കൊക്കെ ഞാൻ നൃത്തം കളിക്കാൻ തുടങ്ങിയത് പക്ഷെ ആ സമയത്തൊക്കെ എന്നെ പ്രചോദിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പുതിയ ഉടുപ്പിടാം അതിനുവേണ്ടീട്ട് ആ നൃത്തം കളിക്കാൻ വേണ്ടീട്ട് മാത്രമായിട്ട് എനിക്ക് നല്ല വേഷം ധരിക്കാം എൻ്റെ മുഖത്ത് ചായം പൂശുമ്പോൾ എന്നെ കാണാൻ നല്ല ഭംഗിയായിട്ട് തോന്നും അങ്ങനെയുള്ള കുഞ്ഞി കുഞ്ഞി കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ ആ പ്രായത്തിലൊക്കെ എന്നെ പ്രചോദിപ്പിച്ചത് പക്ഷെ അതെല്ലാം കുഞ്ഞി പ്രായത്തിലായിരുന്നു എന്ന് മാത്രം പിന്നീട് ഓരോ വലുതായി വരുമ്പോൾ എൻ്റെ ആ നൃത്തത്തിനോടുള്ള ഒരു കലാവാസന അവിടെ വെച്ച് തന്നെ നിന്നു പക്ഷേ പിന്നീട് കോളേജ് തലത്തിൽ എത്തുമ്പോഴും വ്യത്യസ്തമായ വേഷത്തിൽ വേഷത്തിൽ ഉള്ള നൃത്തങ്ങളായി പിന്നെ അതെല്ലാം ഞാൻ പിന്നെ ഒരു രസത്തിന് ചൊല്ലി അങ്ങ് കളിക്കും അല്ലാതെ വേറെ വലിയ പ്രചോദനം ഒന്നുമല്ല പക്ഷേ എന്നിരുന്നാലും ഞാൻ നന്നായി നൃത്തം ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരികളെ കാണുമ്പോൾ നോക്കി നിൽക്കാറുണ്ട് അവർ എങ്ങനെയാണ് ഇത്രയ്ക്കും നന്നായി കളിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കും തോന്നും അന്ന് ഞാൻ ചെറുതായിരുന്നപ്പോൾ നൃത്തം നിർത്തിവെച്ചില്ലായിരുന്നെങ്കിൽ അത് തുടർന്നിരുന്നു തുടർന്നു കൊണ്ടുപോയിരുന്നെങ്കിൽ അത് എനിക്ക് നന്നായി ചെയ്യാൻ തന്നെ പറ്റിയേനെ പക്ഷേ ഇപ്പോൾ അതിനോട് ഞാൻ ശീലിച്ച് വന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല